ഹലോ ആ പറയൂ

ഓക്കെ ഏതായിരുന്നു ചെയ്യേണ്ടത് വി ഐ അല്ലേ ആ ഓക്കെ നിങ്ങള് നിങ്ങളുടെയൊരു ആധാർ ആധാർ കാർഡ് വേണ്ടി വരും ആ അതുപോലെ നിങ്ങളുടെയൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഫോട്ടോ ആധാര് കോപ്പിയായാലും മതി നമുക്ക് നമ്പറായിരിക്കും ആവശ്യം

ഹലോ ആ പാസ്പോർട്ട് സൈസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഫോട്ടോ വേണം നിങ്ങള്ക്കെന്താണ് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടോ നിങ്ങള് പുതിയൊരു സിം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലേ നല്ല നല്ല സിമ്മുകളെന്ന് പറഞ്ഞാല് പ്ലാനുകള് നല്ലത് വരുന്നത് ഇപ്പോള് നമുക്ക് വി ഐ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കില് നമുക്ക് ഇരുന്നൂറ്റിയൻമ്പത് രൂപയില് കൂടുതല് റീചാർജ് ചെയ്യുമ്പോള് നമുക്ക് ഏകദേശം നൈറ്റ് പന്ത്രണ്ട് ടു ഇരുന്നൂറ്റിയൻമ്പത് രൂപയില് കൂടുതല് ഇരുന്നൂറ്റിതൊണ്ണൂറ്റിയൊമ്പത് രൂപ സോറി ഇരുന്നൂറ്റിതൊണ്ണൂറ്റിയൻമ്പതില് കൂടുതല് റീചാർജ് ചെയ്യുമ്പോള് നമുക്ക് നൈറ്റ് പന്ത്രണ്ട് റ്റു ആറ് അൺലിമിറ്റഡ് കോള് വരും അൺലിമിറ്റഡ് ഡാറ്റ കിട്ടുന്നുണ്ട് ഇതുവരെ വീക്കെൻഡില് നമ്മള് ഉപയോഗിക്കാത്ത ദിവസങ്ങളിലെ നെറ്റ് നമുക്ക് വീക്കെൻഡില് ലഭ്യമാകും ആ അങ്ങനെ വി ഐയില് അത്തരലുലുള്ള ഓഫറുകള് വരുന്നുണ്ട് അതുപോലെ ജിയോ എടുക്കുകയാണെന്നുണ്ടെങ്കില് ജിയോ പൊതുവെ പ്ലാനുകൾക്ക് റേറ്റ് കുറച്ച് കുറവാണ് നിങ്ങള് മറ്റ് വി ഐ എയർടെല് ഇതൊക്കെ വെച്ച് നോക്കുമ്പോള് പ്ലാനുകൾക്ക് പ്രൈസ് കുറച്ച് കുറവാണ് ജിയോ സിം നോക്കുകയാണെന്നുണ്ടെങ്കില് പക്ഷേ ജിയോ താരതമ്യേന നമ്മുടെ നാട്ടില് റേഞ്ച് കുറച്ച് കുറവാണെന്നാണ് ഞാന് മനസ്സിലാക്കുന്നത് അതുപോലെ എയർടെൽ ആണെന്നുണ്ടെങ്കില് ഇത്തരത്തിലുള്ള വി ഐയില് വരുന്നതുപോലെയുള്ള ഓഫറുകളൊന്നും വരുന്നില്ല നമുക്ക് നല്ല റേയ്ഞ്ച് കിട്ടും എയര്ടെലാകുമ്പോള് ആ ഓക്കെ സാര് ഏതാണന്ന് തീരുമാനിച്ചിട്ട് അറിയിച്ചാല് മതി ഇത് പൊതുവേ നമ്മള് നോക്കുകയാണെന്നുണ്ടെങ്കില് ഈ ഏറ്റവും കൂടുതല് ഡാറ്റ നമുക്ക് റേറ്റ് കുറവുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം നമുക്ക് താരതമ്യേന കുറവുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം അപ്പോള് കൂടാൻ കാരണമെന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ചിലപ്പോള് ഈ മേഖലയിലുള്ള പല ബിസിനസ്സുകളിലും പല ഇൻകം ടാക്സുകള് റേറ്റ് കൂടാൻ കാരണമാകുന്നുണ്ട് ആ ഓക്കെ ശരി പറയൂ ഏതാണ് സിം ഏതാണെന്ന് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് കോള് ചെയ്താല് മതി ശരി ഓക്കെ താങ്ക് യൂ